വാർത്തകൾ മാത്രമാണോ വായിക്കുന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്രത്തിൽ വാർത്തകളാണല്ലോ നമ്മൾ കൂടുതലും അതായത് ഫ്രൻണ്ട് പേജിൽ എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫ്രൻണ്ട് പേജിൽ ആണല്ലോ ഉണ്ടാവുക അത് വായിക്കും പിന്നെ ആദ്യം പിന്നെ എന്താ നോക്കാ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പസ്സിലുകളും കോമിക്സ് ഒക്കെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഇഷ്ടമാണ് പക്ഷേ വലുതായിട്ട് കളിക്കാൻ ഒന്നും അറിയില്ല പിന്നെ ഞാൻ പതിവായിട്ട് ആദ്യം നോക്കുക ഫ്രണ്ട് പേജിൽ എന്തെങ്കിലും അതായത് മെയിൻ ഹെഡിങ് നോക്കും പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാലമല്ലേ കുറെ പീഡനങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ വായിക്കും പിന്നെ ആദ്യത്തെ ആദ്യമൊക്കെ ഞാൻ ആദ്യം നോക്കുക മെയിൻ ഹെഡിങ് പോലും നോക്കാണ്ട് ആദ്യം ഒക്കെ നോക്കൽ സിനിമ ആയിരുന്നു ഏതൊക്കെ സിനമകളുണ്ട് അങ്ങനെ ഉള്ളതൊക്കെ ആയിരുന്നു നോക്കുക പിന്നെ മരണ കോളം നോക്കും ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു പിന്നെ അത് കഴിയുമ്പം അതായത് ഫസ്റ്റ് പേജ് കഴിഞ്ഞാപ്പിന്നെ അതിൻ്റെ സെക്കൻഡ് പേജിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വയനാട്ടിലെ വാർത്തകൾ കാര്യങ്ങളൊക്കെ ആയിരിക്കും അത് നോക്കും പിന്നെ അങ്ങനെയൊക്കെത്തന്നെ മെയിനായിട്ട് നോക്കും പിന്നെ ആദ്യമൊക്കെ പഠിപ്പുര എന്ന് പറഞ്ഞൊരു സംഭവം വരോരുന്നു അത് വായിക്കും പിന്നെ അത് വെറുതെ മുറിച്ചൊക്കെ വെക്കും അങ്ങനത്തെ പരുപാടിയൊക്കെ ചെയ്യും